ആ പറഞ്ഞോ ബാഗോ ഓക്കേ ആ ഞാൻ ഇവിടെ തന്നെ ആണ് ഉള്ളത് ആ ഞാൻ നോക്കാം എവിടെ ആയിട്ടാണ്

ഞാ ഞാൻ നോക്കാം ആ ഞാൻ നോക്കട്ടെ ഇവിടെ കാണുന്നില്ലല്ലോ ആണോ ആ ഞാനൊന്ന് ഞാനൊന്ന് നോക്കാം ആണോ നോക്കട്ടെ അതിന് വേറെന്തെങ്കിലും അടയാളമോ എന്തെങ്കിലും പറയാമോ

ആ നോക്കട്ടെ ആ കിട്ടിയേ ആ കിട്ടി ഇത് കൗണ്ടറിൽ ആരോ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം

ഇതെങ്ങനെയാണ് ഇപ്പോൾ ആ ഞാൻ എടുത്തു വെച്ചിരിക്കാം കൊണ്ട് തരണോ അതോ വന്ന് വാങ്ങിക്കുമോ ആ ഇപ്പം തന്നെ ഷിഫ്റ്റ് കഴിയുവായിരുന്നു അപ്പം ഇനി അടുത്ത ആളാണ്

അല്ലെൽ ഞാൻ അടുത്ത ആളുടെ കൈയിൽ ഏൽപ്പിച്ചാലും മതിയോ ആണല്ലേ എന്നാൽ ഞാൻ അടുത്ത ആളുടെ കൈയിൽ കൊടുത്തേക്കാം ആ ആ അപ്പം ഷിഫ്റ്റിത് എൻ്റെ ഷിഫ്റ്റ് കഴിയാറായി അപ്പം അടുത്ത ഡ്യൂട്ടിക്ക് കയറുന്ന ആളുടെ കൈയിൽ ഏൽപ്പിച്ചേക്കാം അപ്പം ഞാൻ നമ്പറും കാര്യങ്ങളും ഒക്കെ വാട്ട്സ്സപ്പ് ചെയ്തേക്കാം ആ മ്മ് ഇവിടെ അടുത്ത് ഉള്ളതാണോ താമസിക്കുന്നത് എവിടെയാണ് അടുത്ത്

ആണല്ലേ എപ്പം എത്തും ആ കൊടുത്തു വിടാനായിട്ട് പറ്റും എന്ന് തോന്നുന്നില്ല അപ്പം വരുന്നത് എപ്പം എത്ര മണി എപ്പം എത്തുമെന്ന് പറഞ്ഞാൽ ഞാൻ വേണേൽ വെയ്റ്റ് ചെയ്യാമായിരുന്നു

മ്മ് ആ ആ എങ്കിൽ ഞാൻ എത്തിക്കാൻ പറ്റുവാണെങ്കിൽ എത്തിക്കാം പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തേക്കാം വാങ്ങിക്കാൻ പറ്റുവെങ്കിൽ വന്ന് വാങ്ങിച്ചോ ഞാൻ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ ഞാൻ അയച്ചേക്കാം വാട്ട്സ്സപ്പ് ചെയ്തേക്കാം ആ ഓക്കെ താങ്ക്സ് ആ ശരി